മദ്ധ്യതിരുവിതാംകൂറിലെ ഒരനുഷ്ഠാന കലയായ പടയണി നടക്കുന്നത് കോട്ടയത്ത് കോട്ടയത്തിലെ ഒരു ദേവി ക്ഷേത്രമായ ആലത്തറ തച്ചരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പടയണി നടത്തുന്നത് ആലത്തറ ആലത്തറ ക്ഷേത്രത്തിലെ പടയണി നടത്തുന്നത് ശ്രീ ഭദ്ര പടയണി സംഘമാണ് മീന മാസത്തിലെ രോഹിണി നാളിൽ അവസാനിക്കുന്ന ഏഴു ദിവസത്തെ പടയണിയാണ് ഇവിടുത്തെ പ്രത്യേകത പടയണിയുടെ വടക്കൻ തെക്കൻ ശൈലികളെ സമന്വയിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രത്തിൽ നടന്ന് വരുന്ന ഈ അനുഷ്ഠാന കലയായ പടയണി ഈ പടയണികൾ പടയണി കാലഘട്ടത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭക്തി പുരസരം ഈ പടയണിയെ കാണാറുമുണ്ട് അതുപോലെ തന്നെ പടയണിയെ എല്ലാവരും ആസ്വദിക്കാറുമുണ്ട് ഇത് കാലാകാലങ്ങളിലായി തല ഓരോ തല മുറക്കും കൈമാറുന്നത് കൈമാറുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം ക്ഷേത്രത്തിലെ അനുഷ്ടാനവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബന്ധപ്പെടുത്തി വച്ചിരിക്കുന്നതു കൊണ്ട് അതിൻ്റെ തനിമ ഒട്ടും ചോരാതെ അതിൻ്റെ പഴമ ഒട്ടും ചോരാതെ തന്നെ ഇത് സാധാരണ പുതിയ ഒരു ജനങ്ങളിലേക്കും പുതിയ തലമുറയിലേക്കും ഇതിനെ എത്തിക്ക എത്തിക്കപ്പെടുത്താൻ കഴിയുമോ എന്തോ